പാലക്കാട് ജില്ലയിൽ പ്രാദേശികമായിട്ട് ഇപ്പോൾ നമ്മുടെ സി പി എം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പിന്നെ ബി ജെ പി പാർട്ടികളൊക്കെയുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് മന്ത്രിമാര് എം എൽ എമാരെക്കെ ഉണ്ട് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞിട്ട് എം എൽ എ ഉണ്ട് പിന്നെ രമ്യ ശ്രീകണ്ഠൻ നായർ എം പി പിന്നെ ജില്ലയിലത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് ബിനിമോളുണ്ട് പിന്നെ ആ രമ്യ ഇപ്പോൾ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത്